ഹലോ ആ അനൂ എന്ത് എന്തേ ആ എടാ പറ കണ്ണൂര് പ്ലാസക്കൊരു ഷോപ്പില്ലേ സെഞ്ച്വറി ആ ആ ആ സെഞ്ച്വറി ഫാഷന് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അവിടെ നല്ല നല്ല കളക്ഷൻസ് അവിടെ എല്ലാം ഒറ്റ ബില്ഡിങ്ങില് തന്നെ ഉണ്ട് അപ്പം ആ ആ ഞാന് പോയിട്ടുണ്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ അവിടെ നിന്നൊരു ഡ്രസ്സ് എടുത്തിന് അവിടുത്തെ മെറ്റീരിയലെല്ലാം നല്ലതാണ് വിലയും കുറവാണ് ആ നല്ല നല്ല സെലക്ഷന് സെലക്ഷന്സും ഉണ്ട് ആ ആ പിന്നെ ഉള്ളത് ഇവിടെ ലുലുന്ന് പറഞ്ഞിട്ട് ഉണ്ട് ആ നല്ലതാണ് ലുലുവിലും കല്യാണ ഡ്രസ്സൊക്കെ നല്ല നല്ലതുണ്ട് ആ റേറ്റ് കുറച്ച് കൂടുതലാണ് സെഞ്ച്വറിയിലാണ് കുറച്ച് കുറവ്

ആ പുതിയ ബില്ഡിങ്ങാണ് ആ ആ ഇപ്പോൾ പുതിയ ബില്ഡിങ്ങ് റോഡ് സൈഡില് തന്നെ ആണ് ആ ഓ ആ നമ്മൾ എല്ലാവരും ലുലു അല്ല ലുലുന്നാണ് എടുക്കാറ് ലുലു ഗോള്ഡിൽ നല്ലതാണ് ആ അവിടെ നമുക്ക് അറിയുന്നൊരാളുണ്ട് അതുകൊണ്ട് നല്ല നല്ല കളക്ഷന്സ് ഒക്കെ കാണിച്ചുതരും ആ അവർ ഡിസ്കൗണ്ടും തരും പിന്നെ പണിക്കൂലി എല്ലാം എനിക്ക് കുറച്ചിട്ടൊക്കെ തരും

കണ്ണൂർ ആ മലബാര് മലബാര് ഗോള്ഡൊക്കെ നല്ലതാണ് അവരോട് പറഞ്ഞാൽ അവർ മോഡലെല്ലം എത്തിച്ചുതരും എന്നാണ് കേട്ടത് ആ ആ ആ ആണ് ആ ശരി ശരി